എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹം വളരെധികം നോവലുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം കുറെ പേരുടെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരൻ തന്നെയായിരുന്നു അദ്ദേഹം കുറെ സ്ഥലങ്ങൾ സഞ്ചരിക്കുകയും കുറെ യാത്രകൾ നടത്തിയിട്ടുമുണ്ട് അങ്ങനെ അദ്ദേഹം പോയപ്പോൾ കണ്ട കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഓരോരോ ബുക്കുകളായി എഴുതി അത് മലയാളിയുടെ മനസ്സിലേക്ക് അദ്ദേഹം എഴുതി പതിപ്പിച്ച് വെച്ചിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ കുറെ പിള്ളേരൊക്കെ പഠിക്കുന്ന പാഠപുസ്തകത്തിലായാലും അദ്ദേഹത്തിൻ്റെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നെയാണ് അദ്ദേഹം യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം മരിച്ചതും കേരളത്തിൽ നിന്നല്ല അദ്ദേഹം ഏതൊരു യാത്രയ്ക്ക് പോയപ്പോഴ് എങ്ങാണ്ടാണ് അദ്ദേഹം മരിച്ച് ഇതായത് അദ്ദേഹം വളരെയധികം നല്ലൊരു എഴുത്തുകാരൻ തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യുക